മനസ്സിന് നമുക്ക് എത്രത്തോളം സന്തോഷം തരുന്ന സിനിമകളാണ് സാധാരണ കാണാറുള്ളത് ടെൻഷനുകളോ ബുദ്ധിമുട്ടുകളോ ഉള്ള സിനിമകളൊന്നും കാണാൻ ശ്രമിക്കാറില്ല പിന്നേ സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് എത്രത്തോളം എഞ്ചോയ് ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതാണ് പിന്നെ സീരിയലുകളും കാണാറുണ്ട് നമ്മുടെ സിനിമയിൽ ഫീൽഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആണ് മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പം നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്ക സിനിമ ഒക്കെ കാണാറുണ്ട് സീരിയലുകളും കാണാറുണ്ട് അങ്ങനെ സീരിയലിനായിട്ടും സിനിമയ്ക്കുമായിട്ടും നമ്മൾ അതേ എന്ന് പറഞ്ഞ് അഡിക്റ്റ് ആയിട്ടൊന്നുമില്ല അത്യാവശ്യം കാണും എന്നും പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ സിനിമ കാണാറുണ്ട് ഇഷ്ടപ്പെട്ട ഇതാണ് പാട്ടുകൾ ഒക്കെ ആണെങ്കിലും പഴയ പാട്ടുകളാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം നല്ല നല്ല പഴയ സോങ്ങുകൾ ഒക്കെ കേൾക്കുമ്പം നല്ല ഒരു അർത്ഥം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്